നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കുന്ന ആരോഗ്യ പൂർണ്ണമായ വിഭവങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാഗികൊണ്ടു റാഗി പുട്ടുണ്ടാകും റാഗി കൊണ്ട് പല പല വിഭവങ്ങളുണ്ടാക്കും ഇപ്പോൾ റാഗി കുറുക്കുണ്ടാക്കാം അതുപോലെത്തന്നെ നമ്മൾ ചെറുപയർ മുളപ്പിച്ചത് ചെറുപയർ മുളപ്പിച്ചത് ആവിയിൽ വേവിച്ചു കഴിക്കണത് ആരോഗ്യ പൂർണ്ണമായ ഒരു വിഭവമാണ് അതുപോലെതന്നെ വൻപയർ മെഴുക്കു വരട്ടി അതുപോലെ നമ്മൾ പുട്ടുകൾ പലതരത്തിലുള്ള സ്റ്റീംഡ് പുട്ടുകളുണ്ടാക്കും അരി കുത്തരിപുട്ട് അതുപോലെ നമ്മൾ പലതരത്തിലുള്ള പ്ര ഇപ്പം നമുക്ക് ചോളത്തിൻ്റെ സാലഡ് അതുപോലെത്തന്നെ മുട്ട സാലഡ് അതൊക്കെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനു നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന വിഭവങ്ങളാണ് പിന്നെ അതുകൂടാതെ നമ്മൾ സോയ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ആരോഗ്യത്തിനു നല്ല രീതിയിൽ ഗുണം ചെയ്യും അതു കൂടാതെ നമ്മൾ മുളപ്പിച്ച പയറുകൾ മുളപ്പിച്ച ഏ ഇലവ വർഗ്ഗങ്ങൾ മുള പ പയർ മുളപ്പിച്ച് അതു ചീരയാക്കിയിട്ട് നമുക്കു പലതരത്തിലുള്ള ചീരകളുണ്ടാക്കാം ഇപ്പം പയർ പയർ മുളപ്പിച്ചിട്ട് അതിൽ നിന്നെടുക്കുന്ന ചീര അതുപോലെ പാലക്ക് ചീര അതുപോലെത്തന്നെ ഉലുവ ചീര അതെല്ലാം അതു വെച്ചിട്ട് ചപ്പാത്തികൾ ഉണ്ടാക്കാം ഉലുവ ഉലുവ ചപ്പാത്തി അതുപോലെത്തന്നെ പാലക്ക് ചപ്പാത്തി ഒക്കെ അങ്ങനെയുള്ള പല പല വിഭവങ്ങൾ നമുക്ക് ആരോഗ്യം പൂർണ്ണമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും